ആറ് രണ്ട് രണ്ടായിരത്തി ഒൻപത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി നാല് പത്ത് മുന്ന് രണ്ടായിരം പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളയിരത്തി നാൽപത്തി ഏഴ് മുന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല്